എൻ്റെ പൂന്തോട്ടത്തിലെ പൂച്ചെടികൾ അത് ഈ വീടിനും ഈ പ്രദേശത്തിനും മനോഹാരിത നൽകുകയാണ് സാധാരണ ഗതിയിൽ ചെയ്യുന്നത് അത് മറ്റു തരത്തിൽ ഈ ചെടികളെ നമ്മല് ഉപയോഗിക്കാറില്ല ഇത് ഇതിന് അലങ്കാരമായി തീരാൻ വേണ്ടുന്ന രീതിയിലാണ് അതിനെ നട്ട് സംരക്ഷിക്കുന്നത് ഫലവൃക്ഷ തൈകൾ ആവട്ടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഫലങ്ങൾ അത് നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്ത് ഉള്ളവർക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്